ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രഹ്മഗിരിയിലാ ബ്രഹ്മഗിരി മലയാണ് അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് എന്താ പറയുക ദൂരം കൂടിയ ഒരു സ്ഥലമാണ് നമക്ക് കുത്തനെയുള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഭയങ്കര ബുദ്ദിമുട്ടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആകെ രണ്ട് കുപ്പി വെള്ളമേ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളു അത് പകുതി കയറിയപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ തുടങ്ങി കാരണം നല്ല രീതിയിലുള്ള വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം ആയത് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേയറി തുടങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക നമ്മൾ ബേക്കോട്ടു അതായത് കുറേ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ബാക്കോട്ടു വലിഞ്ഞു വലിഞ്ഞാണ് നമ്മൾ കൂടുതലായിട്ടും കയറിക്കൊണ്ടിരുന്നത് അതൊരു ഭയങ്കര ബുദ്ദിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഭയങ്കര കുത്തനെ ഉള്ള കയറ്റങ്ങൾ കാര്യങ്ങളായിരുന്നു ഒരു ഒൻപതു കിലോ മീറ്ററിനു മുകളിൽ ഉണ്ട് വൺ സൈഡ് മാത്രം മൊത്തം നമ്മൾ നടന്ന് തന്നെ കയറണം അപ്പം രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങി വരാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതൊരു ബുദ്ദിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്